മാം എന്താണ് വേണ്ടത് അ ഓക്കേ ഇവിടത്തെ സ്പെഷ്യൽ ഐറ്റം എന്നു പറയുന്നത് പിടിയും കോഴിക്കറിയുമാണ് അ അതെ അതെ ഇത് അരിപ്പൊടി വറുത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ച് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളു ഇതിൻ്റെ മെയിൻ കോമ്പിനേഷനെന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് അതെ ഇതൊരു വൈറ്റ് തിക്ക് ആയിട്ടിരിക്കുന്നൊരു കോമ്പിനേഷൻ ആണ് അതെ നാടൻ കോഴികളെ ഉപയോഗിച്ച് നല്ല സ്പൈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതെ അതെ അതെ ചിക്കൻ കറി ആണ് അതിൻ്റെ മെയിനായിട്ടുള്ളത് ബാക്കിയുള്ളത് മീറ്റൊക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ചിക്കൻ കറി ആണ് അതിൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതും അതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ വരും മാഡം

അ ഓക്കെ ഓക്കെ ഇത് കിട്ടാനൊരു ഹാഫ് ആൻ ഹവർൻ്റെ താമസമുണ്ട് മാഡം ഞങ്ങൾ എത്രയും പെട്ടന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി എത്തിക്കാം

അ മാഡം എങ്ങനെ ഉണ്ടായിരുന്നു പിടി

അ ഓക്കെ താങ്ക്യൂ മാഡം ഓൾവൈസ് വെൽക്കം അ ഓക്കെ